എന്റെ പിയെഫിൽ നിന്നൊരു വായ്പ എടുക്കണമെനിക്ക് ഒരു വാഹനം വാങ്ങാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്റെ യൂയേയെൻ നമ്പരും അങ്ങനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങള്ക്ക് തരാം അതൊന്ന് എന്താണ് പീയെഫ് വായ്പക്ക് അപേക്ഷിക്കാനുള്ള വായ്പാവിഭാഗത്തിന്റെ ലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് വിശദീകരിച്ച് തരികയും വേണം എങ്കിലല്ലേ എനിക്കത് അതിൽ പ്രവേശിച്ച് തുടർ നടപടികള് എടുക്കാൻ സാധിക്കയുള്ളു